ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നാഷണൽ ഭാഷ നാഷണൽ ആയിട്ട് ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ് ഇല്ല പക്ഷേ നമ്മുടെ ഇന്ത്യയില് ഇനി ഭാരതത്തിൽ ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷുമാണ് ഒഫീഷ്യൽ ആയിട്ട് ഭാഷ എന്ന രീതിയില് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് അല്ലാതെ ഇന്ത്യയിൽ ഏകദേശം പത്ത് പത്ത് ഇരുപത്തിനാല് ഭാഷകളിൽ അധികം സംസാരിക്കുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ ഭാഷയുണ്ട് ഇപ്പോൾ കേരളത്തിൽ ആണെങ്കിൽ മലയാളം തമിഴ്നാട്ടിൽ ആണെങ്കിൽ തമിഴ് കർണാടക കർണാടകത്തിൽ ആണെങ്കിൽ കന്നടകാ കന്നട തുളു പിന്നെ ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ ആന്ധ്ര തെലുങ്കാനയിൽ പോയി കഴിഞ്ഞാൽ തെലുങ്ക് അങ്ങനെ കുറെയധികം ഭാഷകള് നമുക്ക് ഇന്ത്യയില് കാണാൻ പറ്റും നോർത്തിൽ ആണെങ്കിൽ ഹിന്ദി ഉണ്ട് മറാട്ടി ഉണ്ട് പിന്നെ കൊങ്ങിണി ഉണ്ട് അതുപോലെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഓരോ ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെതായ വിവിധ തരത്തിലുള്ള ഭാഷകൾ ഉണ്ട് ഭാഷ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇന്ത്യയിൽ അനേകം ഭാഷകൾ ഉണ്ടെങ്കിലും നമുക്ക് നോർത്ത് ഭാഗത്ത് അധികം പോയിക്കഴിഞ്ഞാൽ നോർത്ത് ഹിന്ദി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും തമിഴ്ന്ന് സാധാരണയായിട്ട് അതുപോലെ സൗത്തില് ഒരു ഭാഷ അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസിലാവാൻ പറ്റും